എൻ്റെ ഗ്രാമം പൊതുവെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം ആണ് കൂടുതലും എൻ്റെ വീട് എന്ന് പറയണത് കൂടുതലും പാടങ്ങളുടെ നടുക്കാണ് എൻ്റെ തറവാട് എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളുടെ അല്ലേ പാടങ്ങളുടെ മുൻവശത്താണ് മുൻവശം നോക്കാണെങ്കിൽ പാടങ്ങളാണ് എൻ്റെ വീടിന് പുറകുവശം ആണെങ്കിലും പാടങ്ങളാണ് അപ്പോൾ ഞാന് പണ്ട് സ്കൂളിലൊക്കെ പോവുന്നത് ഈ ഒരു പാട വരമ്പത്ത്കൂടിയാണ് പോവുന്നത് നല്ല രസമുള്ളതാണ് പക്ഷേ എല്ലാ കാലത്തും പാടത്ത് കൂടെ പോവുന്നതത്ര നല്ല നല്ല ഒരു അനുഭവം ആയിരുന്നില്ല കാരണം മഴക്കാലത്തൊക്കെ തീർത്തും നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് പിന്നെ ഒരുപാട് എന്താ പറയുക വ്യത്യസ്തയായിട്ടുള്ള മരങ്ങളും മറ്റ് കര്യങ്ങളും കൂടെ സംഭുഷ്ടമാണ് എൻ്റെ ഗ്രാമം അപ്പോൾ നോക്കാണെച്ചാൽ പലതരം മരങ്ങള് തേക്ക് അത്പോലെ പ്ലാവ് മാവ് അങ്ങനെ പലതരത്തിലുള്ള ഒര് ഗ്രാമ പ്രദേശത്ത് പല ഗ്രാമ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള വൃക്ഷങ്ങള് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അത്പോലെത്തന്നെ എന്താപറയാ ഒരു പച്ചപ്പിനെ നിർത്തിക്കൊണ്ട് ഒരുപാട് നല്ല നല്ല വീട്കള് നല്ല പരമ്പരാഗത രീതിയിലുള്ള വീടുകള് ഒരുപാട് ഇവിടെ പണി ചെയ്തിട്ടുണ്ട് അങ്ങനെ പാടശേഖരങ്ങളുടെയും അത്പോലെ പരമ്പരാഗത വീട്കളും അത്പോലെത്തന്നെ ഇവടെ വളർത്തു മൃഗങ്ങളെല്ലാം ഇണ്ട് എല്ലാവർക്കും എല്ലാവരും വളർത്തുമൃഗങ്ങളെ വളർത്താറുണ്ട് അപ്പോൾ അതിൻ്റെതായ ഭംഗിയും മറ്റും ഗ്രാമത്തിനുണ്ട് അപ്പോൾ എനിക്കെൻ്റെ ഗ്രാമം ഒരുപാടിഷ്ടാണ് കാരണം എൻ്റെ ഗ്രാമത്തിന് അതി അതിയായ സവിശേഷതകളുണ്ട് ഇവിടെ ഒരുപാട് ഇരപ്പ മരങ്ങളുള്ളതുകൊണ്ടെന്നേ ഇരപ്പകാടെന്ന പേരാണ് ഇവിടെ ഗ്രാമത്തിന് ഇന്നുള്ളത് പിന്നീട് പിന്നെ ഒരുപാടിവടെ പക്ഷികളായിക്കോട്ടെ ഒരുപാട് വ്യത്യസ്ഥയിട്ട്ളള പക്ഷികളും മറ്റും കാര്യങ്ങളുണ്ട്